നിങ്ങൾ മൊബൈല് നമ്പര് മാറ്റിയ സ്ഥിതിക്ക് ഇനി ഡിജി ലോക്കറിൽ നോക്കണമെങ്കിൽ കുറച്ച് മാറ്റങ്ങള് വരുത്താനുണ്ട് ആപ്പിൽ അതായതിപ്പോൾ അതിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾ പുതിയ നമ്പര് മാറ്റിയത് അവിടെ കൊടുക്കണം അപ്പം നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി തിരിച്ചു വരും അതു നിങ്ങൾ അവിടെ അടിച്ചു കൊടുത്താലേ ആപ്പിൽ നിങ്ങളുടെ പുതിയ മൊബൈല് നമ്പർ അപ്ടേറ്റ് ആകും അന്നാലെ നിങ്ങള്ക്ക് ഇനിയും രേഖകളൊക്കെ അതിൽ ചേര്ക്കാന് പറ്റു അപ്പോൾ നിങ്ങള്ക്ക് നാവിഗേറ്റ് ചെയ്യാന് ബുദ്ധിമുട്ടാണെന്ന് അറിയാം അപ്പോൾ ഞാന് തന്നെ സഹായിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈല് ഫോണൊന്നു എനിക്ക് തരാമോ അതിന് നിങ്ങള് തയ്യാറാണോ